ഞാൻ പണ്ട് പഠിച്ച സ്കൂളിൽ ലൈബ്രറി ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ അങ്ങനെ അധികം പോക്കുണ്ടായിരുന്നില്ല എനിക്കങ്ങനെ ബുക്ക് വായിക്കുന്ന ശീലമൊന്നും പണ്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ബുക്ക് വായിക്കുന്നൊരു ശീലം ഉണ്ടായത് ഒരു ദിവസം ഞാനിങ്ങനെ സ്കൂളിൽ എനിക്ക് ബസ് ലേറ്റ് ആവുംന്നു പറഞ്ഞു അപ്പോൾ ഞാൻ എന്തെയ്യും എൻ്റെ കൂട്ടുകാരൊക്കെ പോയി പിന്നെന്തെയ്യുംന്നു വിചാരിച്ച് ഞാൻ അങ്ങനെ ലൈബ്രറിയിൽ പോയിട്ട് എന്തേലും വായിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്നൊരു തോന്നലിൽ ലൈബ്രറി കയറിപ്പോയതാണ് എന്നിട്ട് അവിടെന്ന് ഞാനൊരു ബുക്കെടുത്തു വായിച്ചു അതൊരു മഞ്ഞ് എന്നു പറഞ്ഞിട്ടുള്ള ഒരു മലയാളം നോവലായിരുന്നു എം ടി വാസുദേവൻ്റെ ഒരു മലയാളം നോവലായിരുന്നു അത് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആദ്യം വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്തോ പിന്നേം പിന്നേം വായിക്കണം നമുക്കിങ്ങനെ തോന്നൂല്ലോ അങ്ങനെത്തെ ഒരു നോവലാണ് അത് ഇങ്ങനെ നമുക്ക് എന്താ എന്താന്നറിയാൻ വേണ്ടി ഇങ്ങനെ പിന്നേം പിന്നേം പിന്നേം പിന്നേം വായിക്കാൻ തോന്നുന്നൊരു അങ്ങനെയുള്ളൊരു നോവലാണ് അതെനിക്കിഷ്ടമായി അപ്പോൾ ആദ്യം വായിച്ചപ്പോൾ തന്നെ പിന്നേം വായിക്കണം തോന്നിട്ട് എനിക്കപ്പോൾ സമയം ഉണ്ടായിരുന്നില്ല പെട്ടന്ന് കുറച്ചു സമയം വായിക്കുമ്പോഴ്ത്തേലും ബസ് വന്നിട്ട് ഞാൻ പോയി അപ്പോൾ ഞാൻ പിറ്റേ ദിവസം വന്നിട്ട് ലൈബ്രറിന്നു അത് ചോദിച്ചിട്ട് അവിടെയുള്ള സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാനത് വീട്ടിൽക്കൊണ്ടുപോയി അങ്ങനെ വീട്ടിൽക്കൊണ്ടുപോയി ഇരുന്നു ഞാനത് വായിച്ചു രണ്ടുദിവസം കൊണ്ട് ഇരുന്നു വായിച്ചങ്ങ് തീർത്തു എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളൊരു ഒരു നോവലാണ് അത് ഭയങ്കര മലയാളം നോവല് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആദ്യം വായിച്ചപ്പോൾത്തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിനു ശേഷം ഞാൻ ഇടക്കിടക്ക് ലൈബ്രറിൽ പോയിട്ട് ബുക്കെടുത്ത് വായിക്കുന്ന ഒരു ശീലം എനിക്കതിനു ശേഷം വന്നു അപ്പം ഞാൻ നല്ല നല്ല ബുക്കുകൾ ഉണ്ടാവുംന്നു തോന്നിട്ട് അതിനു ശേഷം വന്നു കാരണം ക്ലാസ്സിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് പോയിരുന്നു എന്തേലും ബുക്ക് വായിക്കാം അപ്പോൾ അതിൽ കുറച്ച് എനിക്ക് ഇഷ്ടം തോന്നി അങ്ങനെ പിന്നീട് ക്ലാസ്സിൽ സമയം കിട്ടുന്ന സമയത്തൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുള്ള സമയമൊക്കെ ഞാൻ ലൈബ്രറിൽ പോയിരിക്കും ഞാനും എൻ്റെ കൂട്ടുകാരും ഒക്കെ വരും അങ്ങനെ അവിടെ നിന്ന് ബുക്കൊക്കെ വായിക്കും